ആ ലാൻഡ് ബ്രോക്കറുടെ നമ്പറാണ് ആരാണ് ആ ആ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ ഓക്കേ അതെന്തിനുള്ളതാണ് വീട്ടാവശ്യത്തിനുള്ളതാണോ അതോ എന്തെങ്കിലും ബിൽഡിംഗിന് വേണ്ടിയിട്ടുള്ളതാണോ ഓക്കെ വീടുള്ള സ്ഥലമായിട്ട് വേണോ ഓക്കെ അപ്പോൾ ഒരു പത്തിൻ്റെയടുത്ത് വേണ്ടി വരും അല്ലേ ഓക്കേ അപ്പോൾ കൃഷി ആവശ്യത്തിനാണെങ്കിൽ നമ്മുടേൽ വേറെ സ്ഥലം ഉണ്ട് കേട്ടോ കുറച്ചുകൂടി കൂടിയ സ്ഥലങ്ങളുണ്ട് അതായത് ഒരു അര ഏക്കർ ഒരേക്കറൊക്കെ വരുന്ന സ്ഥലമുണ്ട് അത് നോക്കണോ ആ ശരി അപ്പോൾ ഒരു പതിനഞ്ച് സെൻറ്റിലൊക്കെ പ്ലോട്ടുകളുണ്ട് ഇതിപ്പോൾ നല്ലവണ്ണം റോഡ് സൈഡിൽ വേണോ അതോ കുറച്ചുള്ളിൽക്കായാലും പ്രശ്നമുണ്ടോ റോഡ് സൈഡാവുമ്പോൾ സെൻറ്റിന് പത്തിൻ്റെ അടുത്തൊക്കെ വരും ആ കുറച്ചുള്ളിൽക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കൊരു മൂന്നിൻ്റെയുള്ളിലൊക്കെ കിട്ടും ആ മൂന്ന് പിന്നെ നമുക്കുണ്ട് അത് പക്ഷെ വഴിയുടെ പ്രശ്നമുണ്ടാവും നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ് നടവഴി ഉണ്ടാവുള്ളൂ വണ്ടി പോവാനുള്ള സൗകര്യം ഉണ്ടാവില്ല ആ അല്ല ടൂ വീലറ് പോവും ടൂ വീലറ് പോവും ഇത് കുറച്ച് ഉള്ളിലേക്കാണ് തൃശ്ശൂരിൽനിന്ന് മണ്ണുത്തിയിലേക്ക് കയറിയിട്ട് അതിൻ്റെയുള്ളിലേക്കായിട്ട് വരുന്നതാണ് അപ്പോൾ നല്ല സ്ഥലമാണ് കൃഷി ചെയ്യാൻ നല്ല കറക്റ്റ് സ്ഥലമാണ് നല്ല വെള്ളം ഉണ്ട് നല്ല മണ്ണാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മണ്ണുത്തി സർവ്വകലാശാലയ്ക്കടുത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വിത്തുകൾക്കും അങ്ങനെത്ത ചെടികൾ കിട്ടാനൊന്നും പ്രയാസമുണ്ടാവില്ല ആ അതിനൊക്കെ സൗകര്യമുണ്ട് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ സ്കൂൾ അതിനുള്ള സൗകര്യമുണ്ട് ഹോസ്പിറ്റൽ അടുത്തുണ്ട് പിന്നെ പള്ളി അമ്പലം അങ്ങനെത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ നമുക്ക് കറക്റ്റ് ഫോർ വീലറ് പോകാനുള്ള വഴി ഉണ്ടാവില്ല എന്നുള്ളൂ ഇല്ലല്ല ഏയ് അതൊന്നും ഇല്ലല്ല കുഴപ്പമില്ല നമ്മളറിയാവുന്ന പാർട്ടിക്കാരുടേതാണ് അങ്ങനെത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല

ഇപ്പോൾ ഇതിപ്പോൾ ഒരു സെൻറ്റിന് ആ വഴിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് സെൻറ്റിനൊരു രണ്ടിനൊക്കെ കിട്ടും പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴി വേടിക്കാം അതിന് മുന്നിലുള്ള സ്ഥലം കൊടുക്കാനുള്ളത് തന്നെയാണ് അവരിപ്പോൾ കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷെ അത് കാലക്രമേണ അവരാ സ്ഥലം കൂടി കൊടുക്കും അപ്പോൾ നമുക്കതിൽനിന്ന് വഴി വേടിക്കാം വഴിക്ക് മാത്രമായിട്ടാവുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ബഡ്ജറ്റിൻ്റെയൊരു പ്രശ്നമുണ്ടാവില്ലല്ലോ അപ്പോൾ ആ സമയത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴി വേടിക്കാൻ പറ്റും

ആണല്ലേ അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് വന്ന് കണ്ടോളൂ കേട്ടോ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ അയച്ചുതരാം അപ്പോൾ ഒരു ഒഴിവുള്ളപ്പോൾ എന്നെയൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ ആ ലൊക്കേഷനിലേക്കെത്തി കഴിഞ്ഞാൽ നമുക്കൊന്ന് പോയി സ്ഥലങ്ങൾ കാണാം മൂന്നുനാല് സ്ഥലങ്ങളുണ്ട് അപ്പം അത് കണ്ടിട്ട് ഏകദേശം ഒരു ധാരണ എത്തിയിട്ട് പിന്നെ നമുക്ക് നോക്കാം ആ അതൊക്ക നമുക്കെന്തെങ്കിലും ചെയ്യാമെന്നേ കുഴപ്പമില്ല നിങ്ങളാദ്യം വന്ന് സ്ഥലം കാണ് കേട്ടോ ഓക്കെ എന്നാൽ ആ ശരി